ഞാൻ യാത്ര ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപെടുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് തോന്നുന്നത് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റ് ശതമാ തൊണ്ണൂറ് ശതമാനം പേരും കാരണം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് നമുക്ക് അറിയാമല്ലോ നമ്മുടെ കൂടെ എന്തിനും നിൽക്കുന്ന എന്തിനും എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ആയിരിക്കും അപ്പോൾ അങ്ങനെത്തെ ഫ്രണ്ട്സിനൊപ്പം അല്ലേ നമ്മൾ ടൂർ പോവുള്ളൂ എന്തായാലും അപ്പം ഫ്രണ്ട്സ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മുടെ സെയിം ഏജ് നമ്മുടെ സെയിം ഏജ് ഒന്നും ആകണമെന്നില്ല കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് പല ഏജ് ഗ്രൂപ്പിൽ ഉള്ളവർ ഉണ്ടാവും പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുന്ന ഒരു സുഖം അത് എവിടെയും കിട്ടില്ല കാരണം ചിരിയും കളിയും നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ഗ്യാങ്ങിൽ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിൽ തന്നെ പലരും പല ക്യാരക്ടർ ആയിരിക്കും അപ്പം അതിൽ ചിലപ്പോൾ ട്രിപ്പ് മൊത്തവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം വർത്തമാനം പറഞ്ഞ് നമ്മൾ മൂഡ് ഓൺ ആക്കി നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും അപ്പം എന്ത് ഉണ്ടായാലും എനിക്ക് അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോവാനാണ് എവിടെ പോവാനായാലും ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോവാനാണ് ഇഷ്ടം